സാങ്കേതിക വിദ്യയില് ഇപ്പോൾ ഈ കുറച്ചുകാലമായിട്ടുണ്ടായ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ മുഴുവന് വളരേയധികം സ്വാധീനം ചെലുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങള് ഇന്നുണ്ടായിട്ടുണ്ട് മുൻപൊന്നും നമുക്ക് ഒരു ഏകദേശ ചുറ്റളവിലുള്ള കാര്യങ്ങള് മാത്രമെ അറിയായിരുന്നുള്ളൂ പണ്ടത്തെ ആളുകൾക്ക് ബാക്കി പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു അറിവ് അവർക്കുണ്ടായിരുന്നില്ല ശരിക്കും ഒരു പൊട്ടക്കിണറ്റിലെ തവളനെ പോലെ തന്നെയായിരുന്നു മുൻപത്തെ ആളുകള് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതിനു ശേഷം ഓരോ ആളുകള് ഓരോന്നായി കണ്ടുപിടിച്ച് നമ്മൾ ഇന്നീ നിൽക്കണ ഈ നിലയിൽ വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഇപ്പോൾ നമ്മളുടെ വിരൽത്തുമ്പിലാണ് ലോകമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ പ്രപഞ്ചം കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചം വരെ നമ്മളുടെ ഇപ്പോൾ വിരൽത്തുമ്പിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ഒരു നിമിഷത്തിനുള്ളിൽ കിട്ടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നമുക്ക് നമ്മളിപ്പോൾ ചന്ദ്രൻ്റെ ഒരു ഇനി അടുത്തത് സൂര്യനിലേക്കാണ് നമ്മള് പോകാൻ പോണത് അപ്പോൾ സാങ്കേതിക വിദ്യ അത്രയും വളരേ വലിയ മാറ്റങ്ങള് അതില് വരുത്തി കൊണ്ടിരിക്കയാണ് ഇപ്പോൾ തന്നെ പറയാം നമ്മളുടെ കയ്യില് സ്മാർട്ട് ഫോണുണ്ട് അതില് ഇൻറ്റർനെറ്റ് ഉണ്ട് അതിൽ കൂടെ നമുക്ക് വീട്ടില് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എല്ലാതരത്തിലുള്ള കാര്യങ്ങളും അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഹോട്ടലില് നമുക്ക് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ റൂമ് ബുക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് ഓർഡറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റും ബാങ്കില് പൈസ അടയ്ക്കാൻ ക്യാഷ് ചെയ്യാ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ കറൻറ്റ് ബില്ല് അടക്കാം ഇങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇവിടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻറ്റർനെറ്റും സാങ്കേതിക വിദ്യയും ലോകത്ത് വളരെ സ്വാധീനങ്ങൾ ചെലുത്തി കൊണ്ടിരിക്കയാണ് സ്മാർട്ട് ഫോണ് നമ്മള് മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നമ്മള് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യണത് ഇപ്പോൾ എല്ലാവരും കൊറോണ അതെല്ലാം ബാധിച്ചതിന് ശേഷം സ്കൂളുകളിലൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മള് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇപ്പോൾ ഹോട്ടലുകളില് നമുക്കിപ്പോൾ രണ്ട് പേരിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ രണ്ടു പേരെ ഉള്ളൂ അപ്പോൾ പുറത്തു പോകാൻ വണ്ടി ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോണിലൂടെ ബുക്ക് ചെയ്താൽ മതി ആ ഹോട്ടലിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ ഭക്ഷണം നമ്മുടെ കാൽ ചുവട്ടിൽ എത്തും അപ്പോൾ ഇതാ ഇത്രയും പുരോഗതികളക്കെ ഉണ്ടാവാൻ ശാസ്ത്രം ഇപ്പോൾ ഇത്ര വളരെയധികം വലുതായി എന്ന് വേണ്ടേ നമുക്കറിയാൻ അതുപോലെതന്നെ ജീവിത നിലവാരത്തിലും വളരേയധികം ഉയർച്ച ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം ഈ സാങ്കേതികവിദ്യ നമ്മള് അവരവിടെ പോയി അല്ലെങ്കിൽ ഒരാള് മൊബൈലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കുറച്ചു പേര് എന്തെങ്കിലും ചെയ്യണത് നമ്മൾ കണ്ടു അപ്പോൾ നമ്മള് വിചാരിക്കും ആ അവര് ചെയ്യുന്നതു പോലെ നമുക്കും ചെയ്യാം അവർ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും അതുപോലെ ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒര് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം അവര് നല്ല ജോലി ചെയ്യണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരാ എനിക്കും നല്ലൊരു ജോലി വേണം അവനെപ്പോലെ എനിക്കും വലുതാവണം എന്നൊക്കെ ഒരു തോന്നല് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിൽ വരും ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ് പക്ഷേ ദുരുപയോഗം ചെയ്യാതിരുന്നാൽ ഏതൊരു സാങ്കേതിക വിദ്യയും നല്ല ഉയത്തിലേക്ക് എത്തും ഇതിലും ഈ സാങ്കേതിക വിദ്യ വഴി ഒരുപാട് അനീതികളും തെറ്റുകളും നടക്കുന്നുണ്ട് അതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നല്ലതിനെ എപ്പഴും നമ്മള് കൂടെ പിടിക്കുക അല്ലാത്തതിനെ നമ്മള് ഒഴിവാക്കി കളയുക